ഹലോ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ അവിടെ നിന്നൊരു ഓർഡറ് റീഫണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോളത് ഞാന് റീഫണ്ട് ചെയ്തപ്പോളെനിക്ക് റീഫണ്ടിൻ്റെ ഓപ്ഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായിട്ട് എനിക്കത് റീഫണ്ട് കയറിയിട്ടില്ല അപ്പം ഞാനൊരു മൂന്ന് ദിവസം മുൻപാണത് റീഫണ്ട് ചെയ്തത് അപ്പം ഞാന് പേയ്മെൻറ്റ് നടത്തിയത് ഗൂഗിൾ പേ വഴിയാണ് ഞാന് ഗൂഗിൾ പേയിൽ എന്നിട്ട് അവരോട് അവര് കസ്റ്റമർ കെയറില് വിളിച്ച് ചോദിച്ചപ്പോളവര് പറഞ്ഞത് ഇതുവരെ അത് റിഫണ്ടായിട്ടില്ല അപ്പോഴൊന്ന് നമ്മൾ ഓർഡർ ചെയ്ത അടുത്തൊന്നു വിളിച്ച് ചോദിക്കാമോന്ന് ചോദിച്ചായിരുന്നു അപ്പം അവര് നമ്മളോട് പറഞ്ഞത് അപ്പം ഞാനങ്ങനെ അത് പ്രകാരമാണ് ഞാൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് എൻ്റെ ഓർഡറ് ക്യാൻസലാകുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ റീഫണ്ട് ലഭിച്ചിട്ടില്ല ഇതുവരെ നമുക്കതിൻ്റെ കാരണം എന്തേലും നിങ്ങളുടെ സിസ്റ്റത്തില് ചെക്ക് ചെയ്ത് നോക്കിയിട്ടൊന്ന് പറയാൻ പറ്റുവോ എന്താണിതുവരെ റീഫണ്ട് കിട്ടാത്തതും അല്ലെങ്കിൽ ഇനി നമുക്കെത്ര ദിവസം താമസം എടുക്കുവെന്നും ഒന്ന് അറിയാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയായിരുന്നെ അപ്പം ഞാന് ഗൂഗിൾ പേയിലെ പേയിലെ കസ്റ്റമർ കെയറിൽ വിളിച്ചപ്പോള് റിഫണ്ടായിട്ടില്ല അപ്പം നമ്മൾ ഓർഡർ ചെയ്ത് അവരെ ഒന്ന് വിളിച്ച് നോക്കാൻ പറഞ്ഞായിരുന്നു അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് എനിക്കൊന്ന് റീഫണ്ടാകാത്തതിൻ്റെ കാരണവും അത് അല്ലെങ്കിൽ ഇനിയിപ്പം റീഫണ്ടായിട്ടില്ലെങ്കിൽ എത്ര ദിവസം കൊണ്ട് നമുക്കത് റീഫണ്ടാകും എന്നുള്ള താമസം എത്ര താമസം വരുമെന്ന് കൂടി ഒന്ന് പറഞ്ഞ് തരാൻ പറ്റുമോ